ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് നാണയങ്ങൾ തന്നെയാണ് അത് വിദ്യാഭ്യാസ ഇതിനായാലും കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കുന്നതാണ് പണ്ട് കാലത്തേ നാണയങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ വാങ്ങിയിരുന്നത് പണ്ട് കാലത്തെ ഈ നാണയങ്ങൾക്കൊക്കെ വളരെ വലിയ മൂല്യമാണ് ഉണ്ടായിരുന്നത് ഇതുകൊണ്ട് വളരെ വലിയ പ്രാധാന്യം ഉള്ളതെന്ന് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ പോകുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള നാണയങ്ങളടക്കം നമുക്ക് കാണാതായതുകൊണ്ട് വരും ഇതും നമ്മൾ ശേഖരിച്ച് വെക്കേണ്ട അവസ്ഥ തന്നെയാണ് പണ്ടുള്ള നാണയങ്ളളൊക്കെ ഇവർക്ക് കാണിക്കുമ്പോൾ അവർക്ക് തന്നെ അതിശയം തോന്നുകയാണ് ഇങ്ങനെയുള്ള നാണയങ്ങളെല്ലാം ഉണ്ടായിരുന്നൊ എന്ന് തന്നെ അപ്പോൾ ഇതെല്ലം നമ്മൾ ശേഖരിച്ചു വെച്ചിരുന്ന വ വിദ്യാഭ്യാസ സുദിനം വളരെ മൂല്യം തന്നെയാണ്